ജെനുവരി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജെനുവരി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മാർച്ച് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് പതിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഒക്ടോബർ പതിനെട്ട് ആയിരത്തി എണ്ണൂറ്റി പതിനാല്